നമുക്കിവിടെ മൂന്ന് എം എൽ എ മാരാണ് ഉള്ളത് മിസ്റ്റർ കേളു സാറ് പിന്നെ സിദ്ദിഖ് സാറ് പിന്നെ ബത്തേരി താലൂക്കിലെ ഒരു എം എൽ എ യും കൂടിയുണ്ട് പിന്നെ നമ്മുടെ മാന മാനന്തവാടി ഗ്രാമപഞ്ചായത്ത് പിന്നെ മാനന്തവാടി പഞ്ചായത്ത് പ്രസിഡൻറ് ശ്രീ ജസ്റ്റിൻ ബേബി സാർ പിന്നെ നമ്മുടെ മാഡം ഇപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് നമുക്ക് വന്ന മാറ്റം ഇവരൊക്കെ പിന്നെ അടിസ്ഥ അതായത് ഭരണത്തിലേക്ക് വന്നപ്പോൾ ഉള്ള മാറ്റം ഈ വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുക പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് റോഡുകള് ചില റോഡൊക്കെ ഭയങ്കര പരിതാപകരമാണ് നമുക്ക് പോകാൻ പറ്റില്ല ടൂവീലർ പോലും പോകാൻ പറ്റില്ല മുഴുവൻ കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് അപ്പം അവര് റോഡുകളൊക്കെ ഒരുമാതിരി നല്ല രീതിയിൽ ടാറിട്ടു റെഡിയാക്കി പിന്നെ തൊഴിലുറപ്പ് പണി വഴി പണിയുണ്ട് എന്നാൽ പിന്നെ കയ്യാലകളുടെ നിർമ്മാണം ഓവു ചാലിന്റെ ഇത് അതായത് ഒരു മഴ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒലിച്ചു റോട്ടിൽ കൂടെ പോകുമ്പം അങ്ങനെ പോകാതെ അതൊക്കെ സൈഡി ൽ കൂടെ പോകാനും വളരെ വളരെ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അതായത് സ്വയംതൊഴില് സ്ത്രീകൾക്ക് സ്വയംതൊഴിൽ കൊടുത്തു ഈ വികലാംഗർക്ക് വീൽചെയര് പിന്നെ സ്കൂളുകൾക്ക് പുതിയ ബിൽഡിങ്ങുകൾ പല സ്കൂൾ ആ ബാത്റൂം സൗകര്യവും പോലുമില്ലാത്ത പല വിദ്യാലയങ്ങളും ഉണ്ട് അവിടെയൊക്കെ ബാത്റൂം സൗകര്യങ്ങൾ കൊടുത്തു അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങള് ഇവര് പിന്നെ അതായത് ഭരണത്തിൽ വന്നതിൽ പിന്നെ നടന്നിട്ടുണ്ട്